ഹലോ ഞാൻ കുറച്ചു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നേ ആ അപ്പോൾ ഞാൻ നേരെ നേരത്തെ ആ എന്റെ പേര് ശ്രീ അതൊന്ന് ചെക്ക് ചെയ്യുമോ ആ ബേപ്പൂര് തന്നെ ആ അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ആ ഒരു സ്ഥലത്തല്ല ഉള്ളത് അപ്പോൾ എനിക്ക് ചെറിയൊരു ആവശ്യം വന്നതുകൊണ്ട് അർജന്റ് ആയിട്ട് എനിക്കിപ്പോൾ ബേപ്പൂർ ടൗണിലേക്ക് വരേണ്ടി വന്നു ആ അപ്പോൾ ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ എന്താണെന്ന് അറിയുമോ അങ്ങോട്ട് പോകണ്ട ഒന്ന് ജസ്റ്റ് ആ ചേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല നിങ്ങൾ ഒന്നു വിളിച്ചൊന്ന് പറയുമോ ഞാൻ കുറെ പ്രാവശ്യമായി ട്രൈ ചെയ്യുന്നു അപ്പോൾ ചേട്ടൻ അവിടെ കാത്തു നിൽക്കില്ലേ ആ അപ്പോൾ അതുകൊണ്ടായിരുന്നു ഒന്ന് വേഗം പറയുമോ അങ്ങനെ പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു ആ അതേയതേയതേ

ആ ഹാ ഹാ

ആ എന്നാൽ അങ്ങനെ അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഉം ഒന്ന് വിളിച്ചിട്ട് ഒന്ന് എന്നെ തിരിച്ചു വിളിക്കണേ ആ ഒക്കെ